ഫെയർനെസ് ക്രീം ഫെയർനെസ് ക്രീമാണ് എനിക്ക് നെഗറ്റീവ് പ്രോഡക്റ്റ് ആയിട്ടുള്ള തോന്നീട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളുക്കാനായിട്ട് എല്ലാവരും മിക്കവാറും പേരും ഉപയോഗിക്കുന്ന ഒന്നാണ് ഫെയർനെസ് ക്രീമുകൾ ഇത് നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് അത് പല തരത്തിലുള്ള ക്രീം ഫെയർനെസ് ക്രീമുകളും ഇന്ന് വിപണിയിൽ നമുക്ക് ലഭിക്കും ആയുർവേദത്തിലും അലോപ്പതിയിലും എല്ലാ രീതിയിലുള്ള ക്രീമുകളും നമുക്ക് ലഭിക്കും നമ്മളെ ചർമ്മം വെളുക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാരും ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് എന്നാൽ അതത്ര ഗുണകരമായ ഒന്നല്ല അത് മാത്രല്ല നമ്മുടെ സൗന്ദര്യത്തിന് ഇച്ചിരി ദോഷങ്ങൾ വരുത്തുന്ന വരുത്തുന്നുണ്ടെന്ന് ആണ് അതിൻ്റെ സത്യാവസ്ഥ വാസ്തവത്തിൽ ഈ ഫെയർനെസ് ക്രീമുകൾ നമ്മുടെ ചർമ്മത്തിന് വെളുപ്പ് നൽകുന്നില്ല കരുവാളിപ്പ് നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന കരിവാളിപ്പുകൾ മാറ്റുകയാണ് ഫെയർനെസ് ക്രീമുകൾ ചെയ്യുന്നത് ഇതിന് സഹായിക്കുന്നത് ഇതിലെ ഇതിൻ്റകത്തുള്ള ചില കെമിക്കലുകൾ ആണ് ഇത് നമ്മുടെ ചർമ്മത്തിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും വളരെ ദോഷം വരുത്തും എന്നാണ് അത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ ഇത് ഇതിന്റകത്ത് കൂടുതൽ പിന്നെ ഈ നമ്മൾ കൂടുതലും ഇതിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് എന്ന വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാവരും മേടിച്ച് ഉപയോഗിക്കുന്നത് എന്ന ഉദാഹരണത്തിന് എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രോക്വിനോൺ എന്ന സ്റ്റിറോയ്ഡ് ഈ പല ഈ പല ഫേസ് ക്രീമുകളിലും അടങ്ങിയിട്ടുണ്ട് ഇത് കൂടുതൽ കാലം നമ്മളുപയോഗിക്കുമ്പോൾ ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാകും പിന്നെ മുഖത്ത് കറുത്ത പാടുകൾ ചെറിയ കുരുക്കൾ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ സൗന്ദര്യത്തിനെ വളരെ അധികം ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവമെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ട് ഈ മുഖത്ത് കുറേ കാലങ്ങളായിട്ട് പല തരത്തിലുള്ള ഫെയർനെസ് ക്രീമുകളും വാങ്ങി പരീക്ഷിച്ചിട്ട് എല്ലാം കൂടി എന്താ വേണ്ടത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന അവസ്ഥേയിലോട്ടാണ് ഞാൻ പോയത് കാരണം മുഖം മുഖത്ത് ഒരുപാട് കുരുക്കളുണ്ടായിരുന്നു കുരുക്കൾ മാറാൻ വേണ്ടീട്ട് വിപണിയിൽ കാണുന്ന പല തരം ഫെയർനെസ് ക്രീമുകൾ ഓരോരോ പരസ്യങ്ങൾ കാണുന്നതിന് അനുസരിച്ച് മാറി മാറി ഉപയോഗിച്ച് ചർമ്മത്തിന് തന്നെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയാണ് ചെയ്തത് അപ്പം ഈ ഫെയർനെസ് ക്രീമുകൾ ഒരു തരത്തിലും നമ്മളെ പിന്നെ ചർമ്മത്തിന് നല്ലതല്ല അത് എങ്ങനെ ആയാലും ആയുർവേദം ആയിക്കോട്ടെ അലോപ്പതി ആയിക്കോട്ടെ എല്ലത്തിനും അതിൻറ്റേതായ ദോഷവശങ്ങളും കൂടിയിണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് മാത്രം നമ്മൾ ഫെയർനെസ് ക്രീമുകൾ ഉപയോഗിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു ഒരു കുറേ കാലം നമ്മൾ ഒരേ ക്രീമ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മം വളരെ മോശം അവസ്ഥയിലോട്ട് പോവുകയല്ലാതെ പ്രായങ്ങൾ കടന്ന് പോവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചർമ്മത്തിന് വളരെ വളരെ ദോഷം മാത്രമേ ഉണ്ടാവൂ ഒരു ഫെയർനെസ് ക്രീമുകളും നമ്മൾക്ക് സ്ഥിരമായിട്ടൊരു വെളുപ്പോ പിന്നെ സൗന്ദര്യമോ ഒന്നും നൽകൂല്ല നമ്മുടെ സ്കിൻ ചർമ്മത്തിനെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയെ ചെയ്യുമെന്നുള്ളത് എൻ്റെ അനുഭവമാണ് അതുകൊണ്ട് ആരും തന്നെ ഫെയർനെസ് ക്രീമുകളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല